ആ പേരൊന്ന് പറയാവോ ആ തോമസ് ഫിലിപ്പല്ലേ അപ്പം ആധാർ കാർഡുവായിട്ട് അധാർ കാർഡ് ഇവിടെ ലിങ്ക് ചെയ്യുന്നത് എന്തൊക്കെ ഡോക്ക്യൂമെൻറ്റാണെന്നാണോ അറിയേണ്ടത് ആ അപ്പം ആ ആ അങ്ങനെ ആ ഓക്കേ ഓക്കേ അപ്പം നമ്മളിവിടെ അക്ഷയ സെൻറ്ററിൽ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ആധാർ കാർഡുവായിട്ടും ഈ ആധാർ കാർഡിൻ്റെ ഉടമസ്ഥനും വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ലിങ്ക് ചെയ്യാം സാധാരണ അധാർകാർഡായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഈ പാൻ കാർഡ്കൾ പിന്നെ അതിൻ്റെ കൂടെ വരുന്ന പെൻഷൻ മസ്റ്ററിങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ ലിങ്ക് ചെയ്ത കൊടുക്കാറ് അപ്പം ഗവ ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ വേറെ വേറെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അക്ഷയ സെൻറ്ററ് ഇപ്പോൾ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ വന്നാലും ഇവിടെ വന്നാലും മതി നമുക്ക് രാവിലെ തൊട്ട് അവൈലബിളാണ് വന്നാൽ മതി ആ അപ്പം വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്കിൻ്റെ പാസ്ബുക്ക് നമുക്ക് അങ്ങനെ ചോദിക്കുന്നില്ല ഇപ്പം ബാങ്കിൽ നമ്മൾ നമ്മൾ ഉപയോഗിച്ച് കുറച്ചെല്ലുമ്പോഴ്ത്തേക്കും പാൻകാർഡാണ് ബാങ്കുവായിട്ട് ലിങ്ക് ചെയ്യുന്നത് അപ്പം പാൻകാർഡും ആധാറും ലിങ്ക്ഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതായത് തന്നെ തന്നെ ഈ അതായത് ആ തന്നേ ലിങ്കായി പൊക്കോളും ഈ ബാങ്കുവായിട്ട് തന്നേ ലിങ്കായി പൊക്കോളും അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം വരുന്നില്ല പാൻകാർഡും അധാർകാർഡും ലിങ്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിനായിട്ടാണെങ്കിൽ സാറിപ്പം ഈ സാർ അപ്പം വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ഈ അല്ല ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി നമുക്ക് ബയോമെട്രിക് ഓദെന്റിക്കേഷൻ ആവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ആൾ ആൾ നേരിട്ട് തന്നെ വരണം ആൾ നേരിട്ട് തന്നെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തൊള്ളു ആധാർകാർഡും വേണം നമ്മുടെ ഡോക്ക്യൂമെൻസും കാര്യങ്ങളെല്ലാം വേണം അപ്പം അപ്പം ഈ ഡോക്ക്യൂമെൻസെന്ന് പറയുമ്പോൾ നമ്മൾ ആൾ നേരിട്ട് വരുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അധാർകാർഡിൻ്റെ ഒർജിനല് കയ്യിൽ വേണം പിന്നെ നമുക്ക് ഈ ലിങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പാൻ കാർഡ് വേറെയുണ്ടെങ്കിൽ പാൻ കാർഡ് നമ്മളത് ഈ ഗവൺമെൻറ്റ് പോർട്ടലിൽ കയറിയാണ് ലിങ്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്കാ ഒരു കാര്യങ്ങൾ ചെയ്ത് തരാം രാവിലെ തൊട്ട് ഇവിടെ ഓപ്പണാണ് ഒരു അഞ്ച് മണിവരെ അക്ഷയ സെൻറ്ററ് ഉണ്ട് വന്നാൽ മതി നമുക്ക് ചെയ്ത് തരാം തിരക്ക് ഉണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തിരക്ക് ഉണ്ട് ഈ ഒരു സമയം സാറിന് അറിയാവല്ലോ അപ്പം ഇതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വരും അപ്പം അതിനനുസരിച്ച് നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ എല്ലാം ലിങ്ക് ചെയ്തു ഇപ്പോൾ ഗവൺമെൻറ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നായതുകൊണ്ട് തന്നെ ആൾക്കാർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒത്തിരിപ്പേർ വരുന്നുണ്ട് ഒത്തിരിപ്പേർ വരുമ്പം ആ ആ അവടിപ്പം സാറിപ്പോൾ വന്ന് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് വേണേൽ ഇവിടെ അപ്പോയിൻമെൻറ്റെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ സാറ് വന്ന് കഴിഞ്ഞാൽ ഞാൻ വേണേൽ ഇവിടെ പേരെഴുതി വെച്ചേക്കാം അപ്പം നാളെ രാവിലെ വന്ന് കഴിയുമ്പോൾ ആ പേരിൻ്റെ ഓഡറിൽ നമുക്കങ് കയറ്റി ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ വരുന്നതായോണ്ട് അതുകുഴപ്പമില്ല ഇപ്പം സൗകര്യമുള്ള ദിവസം ഇന്ന് നാളെ ശനിയാഴ്ച്ച ഞായറാഴ്ച്ച തിങ്കളാഴ്ച്ച തിങ്കളാഴ്ച്ചത്തേക്ക് നമുക്ക് വേണേൽ പേരെഴുതാം ആ എന്ത് പറയുന്നു ആ ഇല്ലില്ല ഇതിലിപ്പം നമ്മളിപ്പം പ്രൊസീജിയറ് തുടങ്ങിയാൽ നമുക്ക് ആ ഒരു ഇതൊണ്ട് ഇപ്പം ഇത് സൈറ്റ് വഴി ചെയ്യുന്ന പരിപാടി ആയോണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കാര്യം ഗവൺമെൻറ്റ് സൈറ്റല്ലേ അതൊന്ന് ലോഡായി വരുന്നതും ഈ ഇന്റർനെറ്റ് ഇഷ്യൂ ഒക്കെ വരുന്നതും നമുക്ക് പ്രശ്നം ആണ് അപ്പം കാര്യങ്ങൾ വന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സാധനങ്ങൾ ഇപ്പം വരുമ്പോൾ ഒരു രണ്ട് ഫോട്ടോ ആധാർ കാഡ് പിന്നെ പാൻ കാർഡ് ലിങ്ക് ചെയ്യേണ്ട കാര്യങ്ങലെല്ലാമായിട്ടൊന്ന് വരിക വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് വന്ന് ചെയ്തതിൻ്റെ കാര്യങ്ങളെന്തെന്ന് വിശദം നമുക്ക് ചെയ്യാം ആ ഓക്കേ ഓക്കേ ഞാനത് എഴുതിയിട്ടേക്കാം വരു വരുമ്പോൾ പേരൊന്ന് പറഞ്ഞ് ചെയ്താൽ മതി അപ്പം എല്ലാം റെഡിയായിരിക്കും ഓക്കേ കുഴപ്പം ഒന്നും ഇല്ല ശരി ശരി ഓക്കേ താങ്ക് യൂ